വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ആകർഷിക്കാത്ത രീതിയിൽ നല്ലയൊരു പ്രകൃതി രമണീയമായ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ടാണ് വിനോദ സഞ്ചാരം കൂടുതലും നമ്മുടെ കേരളത്തിലോട്ടും കുട്ടനാട് പ്രദേശങ്ങളിലോട്ടും ഒക്കെ വരുന്നത് അപ്പം ഭൂപ്രകൃതിയെ കുറിച്ച് നെല്ല് എന്താ നീ പാടത്ത് നെല്ല് വിതയ്ക്കുമ്പോൾ തൊട്ട് അതിൻ്റെ ഓരോ വളർച്ചയും അത് നെൽ നെൽക്കതിരുകൾ ആയി നെൽ അവസാനം നെല്ല്മ നെൽമണികളായി വരുന്നിടം വരെയുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ടു തന്നെ അവരെ കാണിച്ചുകൊടുക്കുക അതു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം അതുപോലെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള ഭക്ഷണങ്ങൾ നാടൻ ഭക്ഷണങ്ങളൊക്കെ ന്ന നല്ല രീതിയിൽ ഉണ്ടാക്കി അവരെ ഭക്ഷണം കഴിപ്പിച്ച് ആസ്വദിപ്പിച്ചും ആ ആ ഒരു രീതിയിലേക്കു വരണം പിന്നെ നല്ല അവബോധം നമുക്ക് സൃഷ്ടിക്കാനായിട്ടു സാധിക്കും അതുപോലെ നമ്മളുടെ അവരെ അവർ പറയുന്ന ഭാഷകളിൽ നമുക്ക് മനസ്സിലാകുകയും തിരിച്ച് അതേ രീതിയിൽ നമ്മൾ തിരിച്ചു പറയുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് കൂടുതലും ആ ഒരു നമ്മുടെ നാടിനോടും നമ്മുടെ ന നാട്ടുകാരോടൊക്കെ ആ ഒരു സ്നേഹം വരുത്തുള്ളൂ